ഹലോ ആ ഇത് നമ്മുടെ അയ് ആ പറഞ്ഞോ ആ ആ ഇറച്ചിക്കടയല്ലേ ഇത് ഇറച്ചീടെ കട ഇറച്ചിക്കടയാണ് ആ ഞാനിവിടെ വിളിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഇറച്ചീടെ ആവശ്യമുണ്ടായിരുന്നു അതിന് വേണ്ടീട്ടായിരുന്നു വിളിക്കുന്നത് ഒരു പരിപാടിക്ക് വേണ്ടീട്ടായിരുന്നു അപ്പം ഏതൊക്കെയാണവിടെ കിട്ടുന്നത് എന്തൊക്കെയുണ്ടവിടെ

ആ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞത്തേക്കാണ് വേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് വേറെ വല്ലതും കിട്ടുവോ പോത്ത് ഇറച്ചി വേണം പന്നി ഇറച്ചി വേണം പോത്ത് ഇറച്ചി വേണം പിന്നെ പന്നി ഇറച്ചി വേണം കോഴി വേണം കോഴി പിന്നെ താറാവ് കിട്ടുവോ താറാവ് ഒരു പത്തെണ്ണം വേണ്ടി വരും ആ പിന്നെ ആ അതെ അതെ വൃത്തിയാക്കിയാണ് തരേണ്ടത് നല്ല വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ നല്ലത് പോലെ വൃത്തിയാക്കി തരണം ആ പിന്നെ ആ പീസ് ബിരിയാണി പീസ് വേണം ആ ആ പന്നി ബിരിയാണിക്കല്ല അതൊരു പത്ത് കിലോ വേണം കറി പീസായിട്ട് പിന്നെ ആ പോത്ത് ഇരുപത് ഇരുപത് കിലോ അത് ബിരിയാണി പീസ് ആ എല്ലൊന്നും വേണ്ട ആവോ കൂടുതലായിട്ട് വേണ്ട എല്ല് കൂടുതൽ വേണ്ട ആ എന്നാലൊരു ശകലം അങ്ങനെ പിന്നെ കോഴി ഇറച്ചി

ആ ആ ആ മറ്റന്നാളത്തേക്കാണ് ഞങ്ങൾക്ക് വേണ്ടത് മറ്റന്നാളൊരു രാവിലൊരു പത്ത് മണിയാവുമ്പം കിട്ടണം അല്ല നിങ്ങളൊക്കെങ്ങനെയാണ് വീട്ടിൽ കൊണ്ട് തരുവോ അതോ

അല്ല അപ്പമതിന് തന്നെ വല്ല വ്യത്യാസങ്ങൾ വല്ലതും വരുന്നുണ്ടോ കൊണ്ട് കൊടുക്കുന്നതിനും

ആ ആ അല്ല എന്നാലും ആ എങ്കിലൊരിത്ര കിലോമീറ്ററിനുള്ളിൽ ഫ്രീയായിട്ട് കൊണ്ട് കൊടുക്കുവായിരിക്കുവല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഞങ്ങൾ ആലപ്പുഴയാണ് ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ലത് അതുകൊണ്ടാണ് വിളിച്ചത് എങ്കിലും പക്ഷേ നിങ്ങൾ തരുമ്പഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന കണക്കുള്ള ആ ഒരു ഗുണമേന്മയൊക്കെ സൂക്ഷിക്കാൻ നോക്കണം അല്ലാതെ ആ

ആ ആ ആ ഞങ്ങളിപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനൊരു നല്ലൊരഭിപ്രായം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത് പക്ഷേ ആ ഒരു കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വില എങ്ങനെയാണ് അതിൻ്റെ വരുന്നത് വില ഇപ്പോൾ നമ്മൾ ആ ആ ആ അപ്പം അതിന്റകത്ത് ആ ആ കുറച്ചൂന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കുറച്ചൂന്ന്

ആ ഹാ ആ ആ ശരി ആ ആ ആ ശരി ആ ശരി എന്നാൽ ആ എന്നാൽ ശരി എന്നാ ഞങ്ങൾ ഇനി വിളിക്കണ്ടല്ലോ ഇനി വിളിക്കാവല്ലോ ചെയ്യണമോ അതോ ഓർമിപ്പിക്കണോ ആ ശരി ആ ശരി എന്നാൽ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ ശരി